ഇപ്പോൾ എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫാൻ ആണ് അതിനെ പറ്റി ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് പറയാനാണെങ്കിൽ ഫാനിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പം എന്താണ് പറയുക നമുക്കിപ്പോൾ വേനൽ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു സാധനം തന്നെയാണ് ഫാൻ അപ്പോൾ അതിന്റെ എന്താണ് പറയുക ഇപ്പോൾ നമ്മൾ ബെഡ്റൂമുകളിലും കാര്യങ്ങളിലും അതെ സാധാരണ വീടുകളിൽ എല്ലായിടത്തും തന്നെ ഫാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് വിലകൊണ്ടായാലും എന്തുകൊണ്ടായാലും ഇപ്പം ഫാൻ ഇപ്പോൾ ആൾക്കാർക്ക് യൂസ് യൂസ്ഫുൾ ആണ് കൂടുതലിപ്പോൾ ഫാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വച്ച് കഴിഞ്ഞാൽ വേനൽ കാലങ്ങളിലൊക്കെ ചൂട് കൂടുമ്പോൾ നമുക്ക് തണുപ്പിക്കാൻ നമ്മളെ ഒന്ന് കൂൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫാൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫാനുകളെന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുണ്ട് എന്റെ വീട്ടിലിപ്പോൾ രണ്ട് തരത്തിലുള്ള ഫാനുകളുണ്ട് ഒന്ന് ടേബിൾ ഫാൻ ഒന്ന് സീലിങ്ങ് ഫാൻ പിന്നെ എന്താണ് പറയുക വാൾ ഫാനും ഉണ്ട് മൂന്നു തരത്തിലുള്ള ഫാനുകളാണ് എനിക്ക് ഇപ്പോൾ വരുന്നത് അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ സാധാരണ നല്ല തണുത്ത കാറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ എന്താണ് പറയുക ഈ ചൂടൊക്കെ എടുത്തിരിക്കുന്ന സമയങ്ങളിൽ ഇതിടുമ്പോൾ നമുക്ക് നല്ലൊരു കാ ഇത് തന്നെയാണ് അനുഭവം തന്നെയാണ് പിന്നെ എന്താണ് പറയുക ഫാനുകളിൽ തന്നെ ഇപ്പോൾ നമ്മൾ മേടിച്ച ഫാനുകൾക്ക് എന്താണ് പറയുക എലെക്ട്രിസിറ്റിയിൽ ഇപ്പോൾ എന്താണ് പറയുക ചാ കുറച്ച് കറൻറ്റ് മാത്രമേ അതിന് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കൂടുതൽ ടൈമിൽ ഫാൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വീട്ടിൽ ഇരിക്കാറുള്ളത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും എന്റെ ഈ ഫാനിനോട് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്